ഉത്തരേന്ത്യൻ ഭക്ഷണം ഒന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല പിന്നെ ഉണ്ടാക്കുന്നത് ചപ്പാത്തി ആണ് മോ ചെറിയ മോന് ചപ്പാത്തി വലിയ ഇഷ്ടമാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കും കഴിക്കും അവന് ഇഷ്ടം വലിയ കടല വെള്ള കടല എന്ന് പറഞ്ഞൊരു കടല ഉണ്ട് അത് അവന് വലിയ ഇഷ്ടമാണ് അത് നല്ലോണം ഉള്ളിയും ഉള്ളിയൊക്കെ വാട്ടി ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഇട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് പിന്നെ കുറ ഒരു തക്കാളി അരിഞ്ഞിട്ട് അതൊക്കെ നല്ലോണം ഉടഞ്ഞ് വരുമ്പോൾ മല്ലിപൊടിയും മുളകും പൊടിയും മഞ്ഞപ്പോടി ചിക്കൻ മസാല ഇട്ട് നല്ലോണം മൂപ്പിച്ച് മല്ലിച്ചെപ്പോക്കെ ഇട്ട് കുക്കറിൽ വേവിക്കും അത് ഇഷ്ടമാണ് ചപ്പാത്തിൻറെ ഒപ്പം പിന്നെ ഭർത്താവിന് മീൻകറീനോടാണ് താല്പര്യം മീൻകറി എല്ലാ തരത്തിലുള്ള മീനും ഇഷ്ടമാണ് കൂടുതൽ ഇഷ്ടം പുഴമീൻ അങ്ങനെയുള്ള മീനുകളാണ് അപ്പം അതൊക്കെ കൊണ്ടുവന്നാൽ നല്ല മുളകിട്ട് വറ്റിച്ച് വയ്ക്കുന്നതാണ് ഇഷ്ടം പൊരിക്കുന്നതൊന്നും ഇഷ്ടമല്ല നല്ലോണം മസാല മഞ്ഞപ്പൊടി മുളകുംപൊടി ഒക്കെ ഇട്ട് നല്ലോണം പച്ചമോ പച്ചമുളക്ക് തക്കാളി ഒക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ച് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നതാണ് ഇഷ്ടം പച്ച വെളിച്ചെണ്ണ ഒഴിക്കും പിന്നെ ചിക്കൻ കറി വയ്ക്കും ചിക്കൻ കറി ഞാന് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് വയ്ക്കും നല്ല നാളികേര കൊത്തൊക്കെ ഇട്ട് അങ്ങനെ വയ്ക്കും പിന്നെ പിന്നെ ഞങ്ങളുടെ ഇവിടെ താളിപ്പൊക്കെയാണ് ഉണ്ടാക്കുക താളിപ്പിനോടൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ താളിപ്പൊക്കെ ഉണ്ടാക്കും മുരിങ്ങ മുരിങ്ങേൻറെ ഇലയൊക്കെയാണ് കൂടുതൽ താളിക്കും ചീര മുരിങ്ങ മത്തൻ്റെ ഇല അതൊക്കെ ഉള്ളി ചെറിയുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കുറച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയൊഴിച്ച് ഉപ്പിട്ടിട്ട് തിളയ്ക്കുമ്പോൾ ഈ ഇലകൾ ഏതാണ് വെച്ചാൽ ഇല ഇട്ട് കുറച്ച് നല്ലോണം വെന്തിട്ട് ഇറക്കി വയ്ക്കും അങ്ങനെയാണ് ഞങ്ങൾ താളിപ്പ് ഉണ്ടാക്കുക പിന്നെ ചുട്ടരച്ച ചമ്മന്തി ഇഷ്ടമാണ് അത് മുളക് ഉണക്കമുളക് ചുട്ടിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി കുറച്ച് പുളിയിട്ട് പിന്നെ അമ്മിയിലരച്ച് നല്ല ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് അതൊക്കെ വലിയ ഇഷ്ടമാണ് പിന്നെ